ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൊഴിലില്ലായ്മ വളരെ കുറവാണ് കാരണം പ്രത്യേകിച്ച് എല്ലാവരും നന്നായി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാണ് കൃഷിയാണ് ഒരു വളരെ വലിയ ഭൂരിഭാഗം ജനങ്ങളുടെയും തൊഴിൽ കൃഷി തന്നെയാണ് എന്നാലും സാംസ്കാരികമായ രംഗങ്ങളിലും അതുപോലെതന്നെ കായികമായാ രംഗങ്ങളിലും ഒരുപാട് ജോലികൾ കണ്ടുവരുന്നുണ്ട് ഓട്ട പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ അതുകൊണ്ടുതന്നെ ഒരുപാട് ഇങ്ങനെ കലപോലെയുള്ള വസ്തുക്കളിൽ ജോലിസംബന്ധമായ നമ്മൾ കാണലുണ്ട് ഒരുപാട് കലകൾ കൊണ്ട് ജീവിക്കുന്നവരെ നമുക്ക് തൃശ്ശൂരിൽ കാണാൻ പറ്റും പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് സർക്കാർ ജോലി അല്ലെങ്കിൽ സെ സർക്കാർ സേവനത്തിൽ കയറുക എന്നുള്ള രീതി പക്ഷെ അതിനു സമയമെടുക്കും ഒരുപാട് പ്രയത്നമെടുക്കും എന്നുള്ളതിനെ കണ്ട് ആയിരിക്കാം തൃശ്ശൂരിൽ ഒരു ഭൂരിഭാഗം ആളുകളും ആളുകളും സർക്കാർ ജോലിയെക്കാൾ സ്വകാര്യ ജോലികളാണ് അവർ കൂടുതൽ ആശ്രയിക്കുന്നത് ഞാനടക്കം പ്രത്യേകമായി വളരെ വേഗത്തിൽ ജോലി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് പണി എടുത്ത് ജീവിക്കുന്നവരാണ് അദ്ധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് നമ്മുക്കൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എനിക്ക് ഒരു രണ്ട് കൊല്ലത്തിൽ ഇത്രയൊക്കെ പൈസ വേണം ഒരുപാട് പൈസ ഇല്ലെങ്കിലും സമാധാനമായി ജീവിക്കാൻ ഒരു ജോലി വേണം അത്തരത്തിലൊരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉള്ളവരാണ് പക്ഷെ തൃശ്ശൂരിൽ അത്തരത്തിൽ ഒരു ചിന്ത വളരെയധികം ഉള്ളതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കൂടുതലും പ്ര സ്വകാര്യ ജോലികളാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഇതിന് പ്രധാന കാരണം എന്നുപറയുന്നത് വളരെ വേഗത്തിൽ ജോലി കിട്ടും എന്നുള്ളതും ശമ്പളം കുറവാണെങ്കിലും അതിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാകും എന്നുള്ളതുമാണ് സർക്കാർ ജോലി എന്നുപറയുന്നത് ജീവിതകാലം മുഴുവൻ നമുക്ക് നല്ലൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഒരുപക്ഷെ ഒരുപാട് സമയങ്ങിലെങ്കിലും നമുക്ക് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവലുണ്ട് അഞ്ചോ പത്തോ ഇരുപതോ വർഷം ശ്രമിച്ചിട്ടും കിട്ടാത്തവരുമുണ്ട് ഒരുവർഷം ശ്രമിച്ചപ്പോഴത്തേക്കും വേഗം കിട്ടിയവരുണ്ട് അതൊക്കെ ഒരു ഭാഗ്യത്തിൻ്റെ കാരണമാണ് എന്നാണ് കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് അതുകൊണ്ടാണെന്നറിയില്ല ഇപ്പോൾ ഒരു പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മളെ വളർത്തിവലുതാക്കിയ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് നോക്കുക നോക്കുക എന്നുപറഞ്ഞാൽ അവരുടെ എല്ലാ ചിലവ് വഹിക്കാൻ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ചെറിയ ജോലി കൊണ്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അതായത് അവർ ഒരു സാധനം ഒരു ആഗ്രഹം പറഞ്ഞുകഴിഞ്ഞാൽ അത് നടത്തുക അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്താൻ ഒരു ശമ്പത്തിനുള്ള വകയുണ്ടാകും അത്രമാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നുള്ളു അപ്പം അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകണമെങ്കിൽ എനിക്ക് ജോലി മാത്രമാണ് ആവശ്യം അല്ലെങ്കിൽ അതൊരു സർക്കാർ ജോലി ആകണമെന്നോ നിലനിൽപ്പുള്ള ജോലി ആകണമെന്നോ ഇല്ല ഒരു ജോലി ആകണമെന്ന് ആഗ്രഹം മാത്രമേ എനിക്കുള്ളു അതുകൊണ്ടാണ് ഞാൻ എന്തു വന്നാലും ഒരു സ്വകാര്യ ജോലി ആയിരിക്കും കൂടുതലും ആശ്രയിക്കുന്നത് സർക്കാർ ജോലിയേക്കാൾ എനിക്ക് വേഗത്തിൽ ശമ്പളം കിട്ടുന്നതും അല്ലെങ്കിൽ ജോലി കിട്ടുന്നതും ഒരു നിലനിൽപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതും അതുപോലെതന്നെ നമുക്ക് എക്സ്പീരിയൻസ് വേണം അതായത് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ഒരു രണ്ട് കൊല്ലമെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണൽ അതുകൊണ്ടുതന്നെ അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകമായും നമ്മൾ എന്താ പറയുക തൃശ്ശൂരിലെ സ്വകാര്യ ജോലികളെ ഇതാക്കുന്നത് പിന്നെ കൃഷി ഒരു വലിയ ഭാഗമാണ് എന്ന് പറഞ്ഞല്ലോ കൃഷി എന്നുപറയുമ്പോൾ നമ്മൾക്കറിയാം വളരെയധികം വളരെയധിയകം നമ്മൾ ആശ്രയിക്കുന്ന ഒന്നാണ് ഭക്ഷണം ഭക്ഷണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളീ ജോലി ചെയ്യുന്നതും അതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എല്ലാം നമ്മുക്ക് മൂന്നു നേരത്തെ ആഹാരം കഴിക്കാനും ഒരു സമാധാനമായ ജീവിതം നയിക്കാനും ആണ് വൃത്തിയായിട്ടുള്ള വെള്ളം നല്ല ഭക്ഷണം എന്നുള്ളതാണ് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ നല്ല കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി കായ്ഫലങ്ങൾ നമുക്ക് കിട്ടണം അങ്ങനെ കിട്ടാൻ വേണ്ടി നമുക്ക് കൃഷിക്കാരെ ആവശ്യമാണ് തൃശ്ശൂരിൽ ഒരുപാട് കൃഷികളുണ്ട് നെല്ല് കൃഷി അതുപോലെതന്നെ ചെമ്മീൻ കൃഷി അതുപോലെതന്നെ കായ് കൃഷികൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പിന്നെ വരുന്നതാണ് വാഴക്കൃഷി വാഴക്കൃഷി വളരെയധികം പ്രാബല്യമായ ഒന്നാണ് അതുപോലെതന്നെ മരിച്ചിനികൃഷികൾ ഇതെല്ലാം വളരെ പിന്നെ മറ്റൊരു കാര്യം എന്നുപറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ഒരു വ്യ ഒരു പട്ടണമായി കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിൽ പട്ടണഭാഗങ്ങൾ ഉണ്ട് എന്നാൽ മുഴുവൻ തൃശ്ശൂരും പട്ടണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ വീടുപണികൾ അല്ലെങ്കിൽ കെട്ടിടപണികൾ വളരെ അധികം വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് അത്തരത്തിൽ കോൺക്രിറ്റ് പണികൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതിനേക്കാൾ അത് എന്നുള്ളത് കൊണ്ടാകാം അത്തരത്തിലുള്ള ജോലികൾക്കും ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ട് എന്നുപറയുന്നതിൽ സന്തോഷമുണ്ട് അത്തരത്തിൽ ഒരുപാട് ജോലി സാഹചര്യങ്ങൾ ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ തന്നെ സ്വകാര്യ ജോലികൾ തന്നെയാണ് എന്തുകൊണ്ടും സ്വകാര്യമല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കുന്ന ജോലികളിലാണ് കൂടുതൽ ആൾക്കാരും ഏർപ്പെടാറുള്ളത്